ഇവിടെ ഞാൻ താമസിക്കുന്നിടുത്ത് സൗകര്യങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ വണ്ടിക്കൊന്നും വാഹനത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ കുറച്ച് അങ്ങോട്ട് ചെന്നാൽ ഞങ്ങൾക്ക് പിന്നെ മുന്നിൽ തന്നെ ജീപ്പ് സൗകര്യമുണ്ട് ടാക്സി ജീപ്പ് ഉണ്ട് പിന്നെ അത്യാവശ്യം ഞമ്മൾ അടുത്തെവിടെയെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചിട്ട് പോവും അല്ലാണ്ട് ഓട്ടോ ഓട്ടോ ഉണ്ട് അങ്ങനെ ഓട്ടോനെ വിളിക്കും ഓട്ടോ വിളിച്ചിട്ട് പോവും അങ്ങനെ ഞങ്ങളെ ഉൾപ്രദേശം എന്നു പറയുമ്പോൾ അത്ര ഉൾപ്രദേശമല്ല നല്ല സ്ഥലമാണ് പിന്നെ ഇവിടെ വണ്ടി സൗകര്യത്തിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഉൾപ്രദേശത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഉണ്ടെങ്കിൽ നമ്മളെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് കൊടുക്കും വണ്ടിയൊക്കെ നമ്മളെല്ലം ഇങ്ങനെ ഫോൺ വിളിച്ചു ചോദിക്കും ഇങ്ങനെ വണ്ടി കിട്ടാൻ സൗകര്യം ഉണ്ടോയെന്നു ചോദിക്കും അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും ശരിയാക്കിക്കൊടുക്കും അങ്ങനെ ഒക്കെയാണ് അല്ലാണ്ട് ഇവിടെ അങ്ങനെ അങ്ങനെയുള്ള പ്രദേശങ്ങളൊന്നും അല്ല നല്ല സൗകര്യപ്പെട്ട സ്ഥലമാണ് ഇങ്ങനെ ഉൾഗ്രാമം ഒന്നും അല്ല അത്യാവശ്യം എല്ലാ സൗകര്യവും ഉള്ള സ്ഥലമാണ് ഞാൻ ഞാൻ താമസിക്കുന്നത് അങ്ങനെ അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതുപോലെതന്നെ അതു ഞങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിച്ചു പോരുന്നതാണ്